പാചകം സ്ത്രീകളുടെ മാത്രം തൊഴിൽ ആണെന്ന് എനിക്ക് തോന്നണില്ല കാരണം അത് രണ്ട് പേർക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് ഒരേപോലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേപോലെ എടുക്കേണ്ട ഒരു പണി തന്നെ ആണ് പാചകം എന്ന് പറയണത് പണ്ടത്തെപ്പോലെ അല്ലല്ലോ ഇപ്പം സ്ത്രീകളും ജോലിയ്ക്ക് പോകുന്നുണ്ട് ജോലിയ്ക്ക് പോയിട്ട് വന്നിട്ട് വേണം അവർ അടുക്കളയിൽ കയറി ഓരോന്ന് ഉണ്ടാക്കാൻ ആണുങ്ങളും ജോലിയ്ക്ക് പോകുന്നുണ്ട് അതുപോലെതന്നെ ആണുങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് പിന്നെ പണിയെടുക്കേണ്ട ആവിശ്യം ഇല്ല ആവിശ്യം ഇല്ല എന്ന് വച്ചാൽ അവർ ആണുങ്ങൾ അല്ലേ എടുക്കുന്നില്ല എന്ന് പക്ഷേ അങ്ങനെ അല്ല പെണ്ണുങ്ങൾ അതുപോലെതന്നെ പോയിട്ട് വന്നിട്ടും പിന്നേയും വീട്ടിൽ എടുക്കുന്നവർ ആണല്ലോ അതുകൊണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് പാചകം അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവതി ആണ് കാരണം എന്നെക്കാളും നല്ലോണം പാചകം ചെയ്യും എൻ്റെ ഹസ്ബൻ്റ് അതുകൊണ്ടുതന്നെ എനിക്ക് പാചകം അത്ര ബുദ്ധിമുട്ട് ആയിട്ട് തോന്നണില്ല ഞാനില്ലെങ്കിൽ ഹസ്ബൻ്റ് അതിനു അനുസരിച്ച് നല്ലോണം ചെയ്തുകൊള്ളും എനിക്ക് എന്തെങ്കിലും അസുഖം ആണെങ്കിൽപോലും പാചകത്തിന് എനിക്ക് വലിയ ബുദ്ധിമുട്ട് വരാറില്ല കാരണം ഹസ്ബൻ്റ് അതുപോലെ തന്നെ പാചകം ചെയ്യുന്നതുകൊണ്ട് അത് ഞങ്ങൾ മെയിൻ്റെയിൻസ് ചെയ്ത് പോകുന്നുണ്ട് ആണുങ്ങൾക്കും ഞാൻ ഞാൻ പറയണത് എല്ലാ ആണുങ്ങളും പാചകം പഠിച്ചെടുക്കണം എന്ന് തന്നെയാണ് എന്നു വച്ചാൽ എന്നും ഇപ്പോൾ സ്ത്രീകൾ അവരുടെ കൂടെ ഉണ്ടാകണം എന്നുണ്ടോ നമുക്ക് ഒരു അത്യാവശ്യം വന്നിട്ട് നമുക്ക് ഒന്ന് പുറത്ത് പോകണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ പാചകം അർജൻ്റ് ആയിട്ട് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പാചകം വയ്ക്കൽ നടക്കില്ല അപ്പോൾ ആണുങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ പാചകം എന്താണെന്നും എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടതെന്നും എല്ലാ ആണുങ്ങളും അറിഞ്ഞിരിക്കണം അല്ലാണ്ട് ഇത് പെണ്ണുങ്ങളുടെ മാത്രം ഒരു കുത്തകയൊന്നും അല്ല പാചകം എന്ന് പറയണത് ആണുങ്ങളും ഒരേപോലെതന്നെ എടുക്കേണ്ട ഒരു ജോലി തന്നെയാണ് പാചകം അതിൽ ഒരു കുറച്ചിലും തോന്നേണ്ട ആവിശ്യം ഒന്നും ഇല്ല